ഹലോ നൈസ് റെസ്റ്റോറൻ്റ് അല്ലേ അവിടെ എന്തൊക്കെ ഫുഡ്ഡുകളാണ് ഉള്ളത് അവിടെ മന്തിക്ക് എത്ര റേറ്റ് വരും എന്നറിയുമോ പിന്നെ അൽഫാം മന്തി ആയിരുന്നു എനിക്ക് വേണ്ടത് അപ്പോൾ അൽഫം മന്തിക്ക് എത്ര റേറ്റ് വരും ആ ഓക്കെ ഓക്കെ ആ പിന്നെ ക്വാർട്ടർ ആണെങ്കിൽ നൂറ്റി ഇരുപത് അല്ലേ ആ ഓക്കേ മന്തി റൈസ് കുറച്ച് കൂടുതൽ തരുമോ പിന്നെ അതിൻ്റെ സാലഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ആ ഓക്കെ ഓക്കെ ഞാൻ മാനന്തവാടിയാണ് ഉള്ളത് ഞാനവിടെ റൂമെടുത്ത് താമസിക്കുകയാണ് അപ്പോൾ അവിടേക്ക് കൊണ്ടുത്തരാൻ എന്തെങ്കിലും എക്സ്പെൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ ആ ഓക്കെ പെട്ടെന്നെത്തിക്കുമോ എനിക്ക് കുറച്ച് വിശപ്പുണ്ടായിരുന്നു അപ്പം വേഗം കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു വേഗം എത്തിക്കാൻ പറ്റുമോയെന്നൊന്ന് ആ ഓക്കെ ഓക്കെ ആ ഓക്കെ എത്ര മണിക്ക് എത്തിക്കും സമയം എത്ര മണിയാണ് ആ ഓക്കെ ഓക്കെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കിഴിവോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാകുമോ ആ ഓക്കെ ആ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പറയുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇവിടെ രണ്ട് മൂന്നു പേര് ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടായിരുന്നു ആ ഓക്കെ ആ ആ ഓക്കെ ഓക്കെ അപ്പോൾ ഡെലിവറി ബോയീൻ്റടുത്ത് ഞാൻ ക്യാഷ് കൊടുക്കാം എന്നാൽ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ഈ നമ്പറിൽ വിളിച്ചാൽ മതി